എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ നാടൻ ഫുഡ് അതായത് നാടന് സദ്യ എന്നൊക്കെ പറയണത് അതെന്നു വച്ച് കഴിഞ്ഞാല് എന്താണെന്നു ചോദിച്ചാൽ എനിക്കിതില്ല പക്ഷെ അതാണ് എനിക്ക് ഏറ്റവും കൂടുതല് കഴിക്കാനായിട്ട് താല്പര്യം ഉള്ള സാധനം അതിൽ ഇപ്പോൾ നാടന് സദ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപ്പേരി ഈ പയറുപ്പേരി അതുപോലെ കാര്യങ്ങൾ നമ്മൾ സദ്യ തുടങ്ങുമ്പോഴുള്ള അച്ചാർ രണ്ടു കൂട്ടം അച്ചാറുണ്ടാകും പുളിയിഞ്ചി ഉണ്ടാകും മറ്റേ ചിപ്സ് നമ്മുടെ വാഴ ചിപ്സ് വാഴക്ക ചിപ്സുണ്ടാകും പിന്നെ ശര്ക്കര വരട്ടി ഉണ്ടാകും പപ്പടം അവിയൽ തോരന് കൂട്ടുകറി കിച്ചടി പിന്നെ നോക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉപ്പേരി അങ്ങനെ എല്ലാം പിന്നെ അതുകഴിഞ്ഞാൽ ചോറ് ചോറിന്റെ ഒപ്പം സാമ്പാറ് കറികൾ ഇപ്പോൾ സാമ്പാർ ഉണ്ടാകും മോരുകറി ഉണ്ടാകും ഓലന് ഉണ്ടാവും അങ്ങനെ ആ ഒരു ടൈപ്പ് പിന്നെ നമുക്ക് അതിന്റെ ഒപ്പം നമുക്ക് മോരുകറി മോര് അങ്ങനെ അങ്ങനെ ആ വിഭവസമൃദ്ധമായ സദ്യ ഏകദേശം പത്ത് ഇരുപത്താറ് നമുക്ക് ഇപ്പോൾ ഇവടുത്തെ മിക്ക കല്യാണങ്ങള്ക്കും സദ്യ തന്നെയാണ് നമ്മള് ഏകദേശം വിളമ്പാറ് അതായത് ഉച്ചക്ക് സദ് സദ്യ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആ ഒരു ഇലയില് നല്ല നാടന് വാഴയിലയില് ഈ സംഭവം കഴിക്കുന്നതിന്റെ ഒരു ടേസ്റ്റ് വേറെ ഏതു ഫുഡിലും നമുക്ക് കിട്ടില്ല അങ്ങനെ അത് എല്ലാം കൂടി പായസം അവസാനം രണ്ടു കൂട്ടം പായസം ഇപ്പോൾ ഗോതമ്പ് പായസമോ അടപ്പായസമോ അല്ലെങ്കില് സേമിയ ഏതു പായസം ആയാലും ഇത് എല്ലാം കൂടി പപ്പടവും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചാല് ഉണ്ടല്ലോ അടിപൊളി നല്ല അടിപൊളി ടേസ്റ്റ് ആണ്